ചേട്ടാ നമസ്കാരം ഞാൻ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ തൃശ്ശൂർ പോകാൻ വേണ്ടിട്ട് എൻ്റെ പിക്ക് അപ്പ് പോയിൻറ്റ് വന്നിട്ട് ഇവിടെ ആലത്തൂരായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ എനിക്ക് ആലത്തൂർ നിക്കാൻ ഞാൻ ആലത്തൂർ എത്തീട്ടില്ല ചേട്ടൻ എന്തായാലും കൊഴമന്നം വഴിക്കാണ് വരുന്നത് എന്ന് മനസിലായി അപ്പോൾ ചേട്ടന് ആ ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ ഒന്ന് എന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇനി ആലത്തൂർ എത്തുമ്പോഴത്തേക്കും ചേട്ടൻ അവിടുന്ന് പാസ് ചെയ്ത പോകും ഞാൻ ഈ കൊഴമന്നം വന്ന് നിൽക്കാം ഏകദേശം എന്തായാലും ഞാൻ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ കൊഴമന്നം എത്തും ചേട്ടൻ അതിന് മുന്നേ എത്തും ചേട്ടൻ അവിടുന്ന് എന്നെ പിക്ക് ചെയ്താൽ മതി